ഹലോ ഞാന് ആൽബിയുടെ അമ്മയാണ് ആൽബിയുടെ അമ്മയാണ് ടീച്ചറാണോ ആ ഇവനില്ലേ പഠിത്തത്തില് അത്രയൊന്നും ഇന്ട്രസ്റ്റ് കാണിക്കുന്നില്ല അപ്പോള് ഭയങ്കരം സ്പോർട്സിലാണ് താല്പര്യം അപ്പോള് ക്ലാസ്സിലൊക്കെ എങ്ങനെയാണ് പഠിക്കുന്നുണ്ടോ ഉം ഇവിടെ നിന്ന് വീട്ടില് വന്നാലും ബാഗെടുത്തിട്ട് ഒറ്റയെറിയലാണ് ഇരുന്നു പഠിക്കാനൊന്നുമില്ല സ്പോർട്സിനോടാണ് ഭയങ്കരം താല്പര്യം അവന് അവൻ്റെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യാനുണ്ടോ വീട്ടില് വന്നാലും ആ ക്രിക്കറ്റ് കണ്ടുകൊണ്ടാണ് നടക്കുന്നത് അപ്പോള് എന്താണ് ഞങ്ങള് നിങ്ങളുടെയൊരു അവിടെയെവിടെയെങ്കിലും അക്കാദമിയില് ചേർത്തുകൊള്ളട്ടെ സ്കൂളിലെന്തെങ്കിലും ഉണ്ടോ സ്പോർട്സ് എന്തെങ്കിലുമുണ്ടോ ആ

ഓ ഞങ്ങള് ചേർക്കാനൊരു പ്ലാനിലാണ് അപ്പോള് അതാണ് ടീച്ചറിനോടൊന്നു ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോള് വിളിച്ചത് ടീച്ചറിനെ പഠിത്തത്തിലൊക്കെ എങ്ങനെയാണ് ആ ഞങ്ങള് വിടാം ആ വിടാം ആ അവന് താല്പര്യമുണ്ടല്ലോ അപ്പോള് ഞങ്ങള് വിടാം അവനെ അപ്പോള് ഞങ്ങള് പഠിത്തമൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോള് ടീച്ചറെ വിളിച്ചത് പഠിക്കുന്നതൊന്നുമില്ല ഫുള്ളി സ്പോർട്സ് ക്രിക്കറ്റിനോടാണ് ഭയങ്കരം താല്പര്യം വീട്ടില് വന്നാലും വീട്ടില് നില്ക്കുന്നില്ല സ്പോർട്സിനോടാണ് ഭയങ്കരം താല്പര്യം അപ്പോള് എന്താണ് ചെയ്യേണ്ടത് സ്പോർട്സിനോട് സ്പോർട്സിലേക്ക് വിടട്ടെ എന്നാല് സ്പോർട്സ് അക്കാഡമിയില് ഏന്തെങ്കിലും വിടട്ടെ അവനെ ക്രിക്കറ്റിന് വേണ്ടി വിടാം ആണോ അപ്പോള് പഠിത്തം നോക്കിയിട്ടല്ലേ നിങ്ങള് അതിനകത്ത് വിടാൻ പറ്റൂ ആ അവനെയൊന്നു പഠിപ്പിച്ചെടുക്കണം കേട്ടോ എക്സാം സമയത്തൊക്കെയൊന്ന് നോക്കി ഒന്ന് പഠിപ്പിച്ചെടുക്കണം ആ ക്രിക്കറ്റിന്റെ കോച്ചിങ് എന്തെങ്കിലുമുണ്ടെങ്കില് അവന് കൊടുക്കണേ അവന് പുറത്തുപോകാന് ആണോ എന്നാല് പുറത്ത് അക്കാഡമിയില് എന്തെങ്കിലും ചേർത്തുകൊള്ളട്ടെ ക്ലബ്ബിലെന്തെങ്കിലും സ്പോർട്സ് ക്ലബ്ബിലെന്തെങ്കിലും ഞാൻ ചേർത്തുകൊള്ളട്ടെ ആഹ് അതെയല്ലേ ഒന്ന് നിങ്ങളൊന്ന് പഠിത്തത്തില് ഒന്ന് ശ്രദ്ധിക്കാമോ അവനെ ആ ശരി എന്നാല് ശരി ശരി ടീച്ചര് ഞാനവനോട് പറയാം ഉം അവൻ്റെ സ്പോൺസർ എന്തൊക്കെയാണ് ഔ സ്പോർട്സ് കിറ്റെന്തെങ്കിലും സ്പോർട്സ് കിറ്റ് ആണല്ലേ എന്നാല് ആ ശരിയെന്നാല് ഞങ്ങള് പുറത്തുനിന്ന് മേടിച്ചുകൊള്ളാം ഉം ആ